നമ്മുടെ ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തില് ബൈക്കോടിച്ചു തുടങ്ങുന്ന കുട്ടികള് പകുതിപ്പേരും ഹെൽമറ്റ് വയ്ക്കാതെയാണു വാഹനമോടിക്കുന്നത് അതുപോലെ തന്നെ ഏതാനും കുട്ടികൾക്ക് ലൈസൻസുമില്ല ഈ ലൈസൻസൊന്നുമില്ലാതെ ഒരു കാരണവശാലും രക്ഷിതാക്കൾ വാഹനം കൊടുത്തുവിടരുതെന്നാണ് എന്റെ ഒരു അഭിപ്രായം പിന്നെ ഇരുചക്ര വാഹനം ഓടിക്കുകയാണെങ്കിൽ മിനിമം ഒരാൾ ഹെൽമെറ്റ് വയ്ക്കണം അതാണു നമ്മുടെ അപകടങ്ങൾ ഒഴിവാക്കാനും നമ്മളുടെ നമ്മളുടെ സ്വന്തം സുരക്ഷയ്ക്കുവേണ്ടിയാണ് നമ്മളുടെ ഈ വാഹനം ഓടിക്കാനും ഇതൊക്കെ പറയുന്നത് നമ്മുടെ സുരക്ഷയ്ക്കുവേണ്ടി മാത്രമാണ് അല്ലാതെ സർക്കാരിനോ പോലീസിനോ ഒന്നും കിട്ടുന്നതിനല്ല ആ ആളുകളുടെ വാഹനമോടിക്കുന്ന ആളുടെ സുരക്ഷയ്ക്കുവേണ്ടിയാണ്